ആ ട്രാവൽ ഏജൻസി അല്ലേ ഞാൻ ഒരു ഊബർ വിളിച്ചിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഞാൻ വിളിച്ചത് അപ്പോൾ അയാൾ വരാം ഇന്ന് രാവിലെ ഒൻപത് മണി ആകും ആകുമ്പോൾ എത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഒൻപത് മണിയാകുമ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇനിയും അയാൾ വന്നിട്ടില്ല ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി ആയി ഞങ്ങൾ പത്ത് രണ്ടു മണിക്കൂറോളമായിട്ട് അയാൾക്കു വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ കുടുംബം എല്ലാവരും കൂടെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് അയാൾക്ക് അയാളെയും കാത്തു നിൽക്കാണ് ഞാൻ ഒരുപാട് ഒൻപതു മണി ആ സമയം തൊട്ട് തന്നെ അയാൾ വരാത്തത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷേ അയാൾ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നൂല്ല ഒരുപാട് ഒരുപാട് തവണ വിളിച്ചു ഇനിയും എടുക്കുന്നേയില്ല ഇപ്പോൾ കൂടി നിങ്ങളെ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ അയാളെ വിളിച്ചു നോക്കി പക്ഷേ എടുക്കുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ കുറെ രാവിലെ എഴുന്നേറ്റു മക്കളൊക്കെ ഒത്തിരി പേരുണ്ട് അവരൊക്കെ എഴുന്നേറ്റ് യാത്ര പോകാൻ വേണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ യാത്രയൊക്കെ കൊളമായത് പോലെയുണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞങ്ങൾ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വേറെ ഒരു ഊബർ വിളിച്ചേനെ പക്ഷേ ഇതിപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞതുമില്ല ഞങ്ങളുടെ സമയവും വേസ്റ്റ് ആയി ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല ഏകദേശം ഞങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്നതാണ് മക്കളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നിട്ട് എല്ലാവരും ഇന്ന് അവധിയെടുത്തു എല്ലാവരും കുടുംബമായിട്ട് യാത്രയൊക്കെ പോകാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ട് അവധിയെടുത്തതാണ് പക്ഷേ ഇതിപ്പോൾ ഒരു എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി ഞങ്ങൾക്ക് വിളിച്ചിട്ട് കോൾ എടുത്തിരുന്നെങ്കിൽ വേറൊന്ന് ബുക്ക് ചെയ്യാവുന്നതേയുള്ളൂ പക്ഷേ അതും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ ഒന്ന് വിളിച്ചിട്ട് വിളിച്ചിരുന്നെങ്കിൽ അതിനുശേഷമാണ് ഇയാൾ വരുന്നതെങ്കിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഇയാൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്രയും നേരം അത് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ അയാൾ എന്തുകൊണ്ട് വരാതിരുന്നത് എന്ന് ഇനി വരുമോ ഇനി സമയം വല്ലതും മാറിപ്പോയതാണോ ഒന്നുമറിയില്ല നിങ്ങൾക്ക് അങ്ങനെ വല്ല അറിവുമുണ്ടോ